നമ്മള് ആദ്യമേ ഒരു ആധാര് കാര്ഡെടുക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഒരു ജനസേവാ കേന്ദ്രത്തിൽ നമ്മുടെ ഒരു ഫോട്ടോയും നമ്മുടെ മേല്വിലാസമടങ്ങുന്ന റേഷന് കാര്ഡോ അങ്ങനെയുള്ള ഏതെങ്കിലും നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖയുമായിട്ട് ചെല്ലണം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവർ നമ്മുടെ യു ഐ ഡി എ എന്നുള്ളൊരു സൈറ്റിനകത്ത് അവർ നോക്കിയിട്ട് നമ്മളെ നമ്മുടെ വിവരങ്ങളെല്ലാം അതിനകത്ത് പിന്നെ കയറ്റി നമ്മുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് നമുക്കൊരു ബയോമേട്രിക്ക് സ്കാനർ എന്നു പറയുന്നൊരു സാധനമാണ് അതിനകത്ത് നമ്മുടെ വിരൽ വെച്ച് അതാദ്യമേ അത് ബയോമെട്രിക്ക് വേരിഫിക്കേഷന് ചെയ്യും പിന്നെ നമ്മുടെ കണ്ണ് കണ്ണിന്റെ ഐ ലിഡ്ഡിനകത്തുള്ള മൂമെന്റും ആ റെറ്റിനക്കുള്ള മൂമെന്റ്റും എല്ലാം റെക്കോഡ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ യു ഐ ഡി എ സൈറ്റിലോട്ടിത് അയക്കും അതു കഴിയുമ്പം നമുക്കൊരു കുറച്ച് ദിവസങ്ങള് കഴിയുമ്പം നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള രേഖകളെല്ലാം വെച്ചു നമുക്കൊരു ആധാര് കാര്ഡ് കിട്ടും ഈ ആധാര് കാര്ഡുമായിട്ട് നമ്മൾ ഏതു ബാങ്കിലും നമ്മൾ അക്കൗണ്ട് തുടങ്ങാനായിട്ട് പോകുന്നോ ആ ബാങ്കിൽച്ചെന്നു കഴിഞ്ഞിട്ട് നമുക്ക് കെ വൈ സി എന്നു പറയുന്ന ഒരെണ്ണമുണ്ട് അതായത് നോ യു നോ യുവര് കസ്റ്റമര് അതിനകത്ത് നമ്മളുടെ വിശദവിവരങ്ങളെല്ലാം നമ്മൾ വീണ്ടും വെച്ചിട്ട് ആധാര് കാര്ഡിന്റെ നമ്പരും ചെയ്തു കഴിഞ്ഞാല് നമ്മളുടെ കെ വൈ സി അപ്ഡേറ്റഡാകും അപ്പം അതനുസരിച്ചിട്ട് ബാങ്കില് സബ്മിറ്റ് ചെയ്യുക നമ്മളാദ്യമേ ഇനിഷ്യലായിട്ട് നമ്മളൊരു പൈസ ഇത്ര രൂപ ഇത് അപ്പം അത് നമുക്കു വേണം ചെക്ക് ബുക്ക് വേണമെങ്കിൽ ഇത്ര രൂപ നമ്മളയക്കണം അടയ്ക്കണം അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പാസ് ബുക്കും നമ്മുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഇതായിട്ടു കിട്ടും അങ്ങനെ നമുക്ക് ഒരു പാസ് ബുക്കിന് നമുക്ക് അര്ഹനാകും ആ പ പാസ് ബുക്കിന്റെ അക്കൗണ്ട് നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് ആ ബാങ്കിൽ പണം നിക്ഷേപിക്കുകയും ആ ഉള്ള പണത്തിൽ നിന്ന് നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആധാര് കാര്ഡ് എടുക്കുക എന്നു പറയുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങള്ക്കും എല്ലാത് നമ്മളുടെ